ഇത് ഒറ്റപ്പാലം അറേബ്യൻ ഹോട്ടൽ അല്ലേ എനിക്കൊരു പത്താൾക്ക് ഉള്ള ഒരു ഫുഡ് വേണം അവർക്ക് ഒരൂ ആ പത്താൾക്കുള്ളൊരു അൽഫാം മന്തി പിന്നേ ഒരൂ രണ്ട് ലിറ്റർ സ്പ്രൈറ്റ് രണ്ടു ലിറ്റർ കൊക്കകോള ആ ഇതൊരു ഒന്നര മണി ആകുമ്പോളെക്കും വേണം വീട് ഇവിടെ ഒറ്റപ്പാലം ഈസ്റ്റിലേജ് ഈസ്റ്റില് തന്നെയാണ് പിന്നേ ആ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ ആ അത്ര വലിയൊരു ഓർഡർ എടുക്കല്ലേ അപ്പോൾ ഇതിനനുസരിച്ച് എന്തേലും ഒരു ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ ഒന്ന് നോക്കണം എൻ ക്യാഷ് ഞാൻ കൈയ്യില് തരാം ഡെലിവറ് ചെയുമ്പോൾ തരാം